ഹലോ ഇത് മാത്യു ബേക്കർ അല്ലേ അതേ എനിക്കൊരു കേക്ക് ഓർഡർ ചെയ്യാനായിട്ടായിരുന്നു ഏതൊക്കെ ഫ്ലേവർ ആണ് ഉള്ളത് നിങ്ങൾക്ക് അവിടെ കേക്കിനൊക്കെ നമുക്ക് ചോക്ലേറ്റ് ബേസിലൊരു കേക്ക് ചെയ്യാൻ പറ്റുമോ ഓക്കെ എനിക്ക് ഈ വരുന്ന സൺഡേ ആണ് വേണ്ടത് ഏകദേശം പത്തുമണിയാകുമ്പോൾ വേണം

അത് മൂന്ന് ലേയർ മൂന്ന് കെ ജി ഒക്കേഷൻ ബർത്ത്ഡേ ആണ് കേക്ക് ഉണ്ടാക്കുന്നതിന് കുറച്ചിതാക്കണം അതായത് ബേസ് ചോക്കലേറ്റ് ആണെങ്കിലും വിപ്പിങ് ക്രീം വൈറ്റ് ആക്കിയിട്ട് ചെയ്യണം എന്നാണ്

ആ അതുപോലെ തന്നെ ഒരു ഫോട്ടോ പറ്റുമെങ്കിൽ അതിൻ്റെ മുകളിൽ ലേയർ ആക്കിയിട്ട് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കണം

അതെനിക്കൊരു സൺഡേ ഒരു പത്തുമണിയൊക്കെ ആകുമ്പോഴേക്കും

നിങ്ങൾക്ക് ഈ കേക്ക് ഓപ്ഷൻ അവൈലബിൾ ആണോ എങ്ങനെയാണതിൻ്റെ റേറ്റ് സ്റ്റാർട്ടിങ് വരുന്നത് ടൂ തൗസൻഡോ ഓക്കെ ഇത് പാക്ക് ആയിട്ടാണോ വരുന്നത് ഓക്കെ ഓക്കെ ഈ പറഞ്ഞത് മാതിരി കേക്കിൻ്റെ കൂടെ പറ്റുമെങ്കിൽ അതും ഇൻക്ലൂഡ് ചെയ്തോളൂ ഫോട്ടോ വരുമ്പോൾ എങ്ങനെയാണ് റേറ്റ് വരുന്നത് ഫോട്ടോ ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് റേറ്റ് വരുന്നത് സൈസിനനുസരിച്ചാണോ റേറ്റ് കൂടുന്നത് അപ്പം ഫോട്ടോ ഫോട്ടോ കേക്ക് നമുക്ക് വരുന്നത് സൈസിനനുസരിച്ചാണോ അപ്പോൾ റേറ്റ് കൂടുന്നത് ഓക്കെ ഓക്കെ അങ്ങനെയാണെങ്കിൽ എനിക്ക് രണ്ട് കേക്ക് ആക്കിയിട്ട് ചെയ്യാൻ പറ്റുമോ അങ്ങനെ അപ്പം നിങ്ങൾക്ക് എപ്പോഴാണ് അവൈലബിൾ ആവുക സമയം ഒന്നുകൂടി വൺ തേർട്ടി അതൊരു ട്വൽവ് ഒ ക്ലോക്ക് ആക്കാൻ പറ്റുമോ എനി എനിക്ക് വന്ന് കളക്ട് ചെയ്യാൻ പറ്റില്ല എനിക്ക് നിങ്ങൾ കൊണ്ട് കൊണ്ടുവന്ന് തരേണ്ടിവരും വേണമെങ്കിൽ ഞാൻ അതിനായിട്ട് ഡെലിവറി ചാർജ് തരാം ഓ ഓക്കേ ഞാൻ എങ്ങനെയാണ് എന്തെങ്കിലും അഡ്വാൻസ് തരണോ അല്ലെങ്കിൽ ഗൂഗിൾ പേയിൽ ഫുൾ എമൗണ്ട് ഇടണോ ഓക്കേ ഓക്കെ ഈ പറഞ്ഞത് മാതിരി ഡെലിവറി ചാർജ് അതിൽ ഇൻക്ലൂഡ് ചെയ്യണോ അതോ ഞാനത് വരുമ്പോൾ തന്നാൽ മതിയോ വരുമ്പോൾ തന്നാൽ മതിയല്ലേ ഓക്കെ ഓക്കെ എൻ്റെ അഡ്രസ്സ് ബ്രഹ്മകുളമാണ് അല്ല എൻ്റെ ഈ നമ്പറിലേക്ക് വിളിച്ചാൽ മതി അപ്പോൾ ഞാൻ കറക്ട് ലൊക്കേഷൻ നിങ്ങൾക്ക് വാട്സപ്പിൽ അയച്ചുതരാം ആ ഓക്കെ താങ്ക് യൂ